നമസ്കാരം ഇത് കാലിക്കട്ട് ട്രാവലേഴ്സ് അല്ലെ ഞങ്ങള് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുന്നേ അവിടെ നിന്നൊരു മിനി ബസ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് പൊന്മുടി ട്രിപ്പ് പോകാൻ എനിക്ക് തോന്നുന്നു അന്ന് ഉണ്ടായിരുന്ന ഡ്രൈവറ് മിസ്റ്റർ സന്തോഷാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങള് അടുത്ത മാസം മൂന്നാമത്തെ സൺഡേ ഞങ്ങള് വീണ്ടും ഒരു യാത്ര പോകുന്നുണ്ട് അപ്പം ഇതേ സെയിം മിനി ബസ്സും ഡ്രൈവറും തന്നെ കിട്ടുമോ എന്നറിയാനായിരുന്നു അന്ന് കോൺടാക്ട് നമ്പറ് വാങ്ങിക്കാൻ പറ്റിയില്ല ഏജൻസി വരി വഴി സംസാരിച്ചാണ് ആ ഡ്രൈവറെ കോൺടാക്ട്യ്തോണ്ടിരുന്നേ അപ്പം ഡ്രൈവറിൻറ്റേതായ കോൺടാക്ട് നമ്പറ് കയ്യിലില്ല അപ്പം നിങ്ങൾ ഇപ്പഴും സന്തോഷ് ചേട്ടനവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചേട്ടൻറ്റെ നമ്പറ് ഒന്ന് തരാമോ ആ ക്യാബ് ബുക്ക് ചെയ്യാനായിരുന്നു ഇത് ഞങ്ങൾക്ക് ഇത് വൺ വീക്കിൻറ്റെ ഒരു ട്രിപ്പാണ് അപ്പം അതിൻറ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് എന്താ ചെയ്യുക എന്നൊക്കെ കൂടി ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നിങ്ങളുടെ റീസണബിൾ പ്രൈസാണ് എന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഏജൻസി തന്നെ വീണ്ടും ബുക്കെയ്യുന്നത് അന്നത്തേത് ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അന്നത്തെ ട്രാവലിംഗ് ചേട്ടൻ നന്നായിട്ട് തന്നെ ഞങ്ങളെ എല്ലാ ഇടത്തും കൊണ്ടുപോയി അപ്പം നിങ്ങള് ഇത്തവണയും ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ ബുക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ എനിക്ക് ഇപ്പം ഈ ആഴ്ച്ച കൂടി സമയമുണ്ട് ഇതൊന്ന് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ അപ്പം ഈ ആഴ്ച്ച തന്നെ ഇതൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് അഡ്വാൻസും തരാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നേ അപ്പം എങ്ങനെ ആണെന്ന് ഒന്ന് പറഞ്ഞാൽ പെട്ടന്ന് അത് ചെയ്യാമായിരുന്നു